ഹലോ ഹലോ ഹലോ ഹലോ ആ പറഞ്ഞോ ആ അതെ പറയൂ സർ

ആ ആ ഓക്കെ സർ സാർ എങ്ങനെയാണ് ഈ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരുന്നതാണോ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ സർ നമുക്കിപ്പോൾ ഫെസ്റ്റിവൽ ആയിട്ടിപ്പോൾ ഓൾമോസ്റ്റ് കേരളത്തിൽ വരുന്നതെന്താന്നു വെച്ചാൽ മെയിൻ ആയിട്ട് വരുന്നതെന്നുവെച്ചാൽ തൃശൂർ പൂരം പിന്നെ കുട്ടനാട് അവിടെവരുന്ന വള്ളംകളിയും കാര്യങ്ങൾ ആലപ്പുഴ വരുന്ന വള്ളംകളി പിന്നെ നമുക്ക് കാർണിവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എറണാകുളത്തു അങ്ങനത്തെയൊക്കെയാണ് ഫെസ്റ്റിവൽസ് ആയിട്ട് വരുന്നത് പിന്നെ വയനാട്ടിലേക്കൊക്കെ ആണെങ്കിൽ ഫ്ളവർ ഷോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സാറെന്നത്തേയ്ക്കാ എത്തുന്നത് ആ ഓക്കെ ആ ഓക്കെ സാറിന് വേറെന്തെങ്കിലും അറേഞ്ച്മെൻറ്സ് നമ്മൾ ചെയ്തുതരേണ്ടതായിട്ടുണ്ടോ ആ ഓക്കെ സാറിന് ആ ഓക്കെ ട്രാവൽ ഇപ്പോൾ നമുക്ക് ക്യാബ് എത്ര മെമ്പേർസാ ഉള്ളതെന്നറിഞ്ഞാലാണ് നമ്മൾ ക്യാബ് എങ്ങനത്തെയാ വിടേണ്ടതെന്നു നോക്കുക സാറപ്പോൾ എങ്ങനെയാണ് ആ എത്ര പേര് എത്ര മെമ്പേർസ് ഉണ്ടാവും ആ ഓക്കെ അപ്പോൾ നമുക്കൊരു ഫോർ സീറ്ററൊരു ഇന്നോവ ക്രിസ്റ്റ അങ്ങനെയെന്തെങ്കിലും വണ്ടി വിട്ടാൽ മതിയാവുമോ ആ ഓക്കെ ആ ഓക്കെ അപ്പോൾ എയർപോർട്ട് വരാനാണെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ വരാം റെയിൽവേ എങ്ങനെയാ സർ വരുന്നത് ആ ഓക്കെ ആ ഓക്കെ അപ്പോൾ നമുക്കത് നോക്കിയിട്ട് ചെയ്താൽ മതിയല്ലോ അപ്പോൾ സർ വരുന്നതിൻ്റെ ഒരു തലേദിവസം നമ്മളെ വിളിച്ചുപറയുവാണേൽ നമ്മൾ ക്യാബ് അറേഞ്ച് ചെയ്യാം പിന്നെ റൂംസും കാര്യങ്ങളും എങ്ങനെയാ സ്റ്റാർ പ്രോപ്പർട്ടി എന്തേലും നോക്കണോ അതോ നോർമൽ വില്ല റിസോർട്ട് അങ്ങനെയെന്തേലും നോക്കിയാൽ മതിയോ ആ ഓക്കെ ഓക്കെ ആ ഓക്കേ ഓക്കെ അപ്പോൾ ആ ആ ഓക്കെ അതു ഞാൻ അറേഞ്ച് ചെയ്യാം പിന്നെ ഫുഡും കാര്യങ്ങളും നമുക്കവിടെത്തന്നെ സെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഇരുപത്തഞ്ചാം തീയ്യതി തൊട്ടു സർ എത്ര ദിവസത്തെ ലീവിനാണ് വരുന്നത് ആ ഓക്കെ അപ്പോൾ ആ വൺ വീക്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ കാണാൻ പറ്റിയ സ്ഥലങ്ങളും ഫെസ്റ്റിവൽസെല്ലാം ഞാൻ നോക്കിയിട്ട് സാറിനോട് കറക്റ്റ് പറഞ്ഞുതരാം അപ്പോൾ സാറതിനകത്ത് ഏതൊക്കെയാ ആദ്യം പോകേണ്ടതെന്നു പറയുവാണേൽ നമുക്കെവിടേക്ക് ഇതാക്കാം പിന്നെ ഗൈഡിനെ ആരേലും കൂടെ നമ്മൾ അയക്കണമെന്നുണ്ടോ അതോ സാർ ഏകദേശം ഡിസ്റ്റൻസ് പറഞ്ഞുതന്നാൽ സാർ ഒറ്റയ്ക്ക് പോവില്ലല്ലോ ആ ഓക്കെ ഓക്കേ ആ ഓക്കെ അതിപ്പോൾ നമ്മളൊരാളേയും കൂടി തന്നുവിടാം അപ്പോൾ സാറെന്തായാലും നോക്കീട്ട് നമുക്ക് എന്തേലും അറേഞ്ച്മെൻറ്സ് വേറെന്തേലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുപറഞ്ഞാൽ മതി നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഉള്ള ലൊക്കേഷനും ഫെസ്റ്റിവൽസ് എല്ലാം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോസ് ആയിട്ട് വാട്ട്സാപ്പ് ചെയ്തുതരാം എന്നിട്ട് സർ നോക്കിയിട്ട് നമുക്കേതൊക്കെ സ്ഥലത്താ ആദ്യം പോകണ്ടതെന്നു പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ അതിനനുസരിച്ചു അതുചെയ്തുതരാം കേട്ടോ ഓക്കെ സർ താങ്ക് യൂ